ഹലോ അവിടെ വിൽട്ടൻ റെസ്റ്റോറൻറ്റ് അല്ലെ നമ്മൾ രാവിലത്തെ ബ്രേക്ഫാസ്റ്റ് ഫുഡ്സൊക്കെ അറിയാൻ വേണ്ടി ആയിരുന്നു വിളിച്ചത് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നേ ഉപ്പുമാവ് അങ്ങനെ ഒക്കെ ഇല്ലേ മസാല ദോശ ഒക്കെയോ

അ വെള്ളയപ്പം പുട്ട് അ അ മസാല ദോശയൊക്കയോ അ മസാല ദോശയുടെ പ്രിപറേഷൻ ഒക്കെ എങ്ങനെ ആയിരിന്നു

അ അ അ അതെ ചെറുകടികൾ ഒന്നും ഉണ്ടാക്കിയില്ലേ രാവിലെ അ എങ്ങനെ എങ്ങനെ റേറ്റ് ഒക്കെ ചെറുകടികളുടെ റേറ്റ് ഒക്കെ എങ്ങനെയാണ്

അതെ മസാല ദോശക്കൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് അ അ അപ്പോൾ വെള്ള അപ്പത്തിന് അ അ നമുക്ക് ഒരു കല്യാണ വീട്ടില് രാവിലത്തേക്ക് ഉള്ള ഓർഡർ ആയിരുന്നേ ഒരു വെള്ള അപ്പം ഒരു ഇരുന്നൂറ് വെള്ള അപ്പവും എന്തൊക്കെ കറി ഉള്ളത് വെജ് കറി എന്താ എന്തൊക്കെ വെള്ള അപ്പത്തിന് ഉള്ളത്

അ അ അ പിന്നെ മസാല കറി പൂരി മസാല അങ്ങനത്തെ ഒക്കെ ഉണ്ടോ അതിന് എങ്ങനെ കറി എങ്ങനെ റേറ്റ് എങ്ങനെ ആണ് വരുന്നത്

അ അ അ അങ്ങനെ അത് വെള്ള അപ്പത്തിനുള്ള ചിക്കൻ കറികൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് അ ഓക്കെ മാം കൺഫോം ആയിട്ട് വിളിക്കാം